ഞാനൊരു തയ്യൽക്കാരിയാണ് ചുരിദാറും ബ്ലൗസും പിള്ളേർക്കുള്ള സ്കേട്ടും യൂണിഫോം സെറ്റും എല്ലാം തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതിൽ തയ്ച്ച് കൊടുത്തിട്ട് ഇതുവരെ ആരും കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടില്ല ചിലർക്കൊക്കെ ഒത്തിരി നല്ല അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത് അവരുടെ ശരീരത്തിന് ചേർന്ന രീതീ തന്നെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പുറത്തുള്ളവർക്ക് ബ്ലൗസൊക്കെ നല്ല രീതീ തയിച്ച് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് അവരുടെ അളവുകൾ തന്നതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ തയിച്ച് കൊടുക്കുന്നുണ്ട് അത്കൊണ്ട് അവർക്കൊക്കെ താല്പര്യമാണ് പിന്നേം പിന്നേം അവർ കൊണ്ടു വരുന്നുമുണ്ട് അത് കണക്ക് നമ്മളേ ഗിഫ്റ്റായിട്ട് കൊടുത്തതിന് കുഞ്ഞുങ്ങൾക്ക് ബെർത്ത് ഡേയ്ക്കക്കെ വരുമ്പോൾ ഞാൻ തന്നെയാണ് അവർ പറയുന്ന രീതീൽ തയ്ച്ച് കൊടുക്കുന്നത് പിള്ളേർ ഓരോ മോഡല് കൊണ്ട് കാണിക്കും ഇന്ന രീതീൽ തയ്ച്ച് തരണം എന്ന് പറയും തുണിയെടുത്ത് തരും അത് നമ്മൾ ആ രീതിയിൽ തന്നെ തയ്ച്ച് കൊടുക്കുമത് കണക്ക് കസ്റ്റമേഴ്സ് ഉപഭോക്താക്കളും അത് കണക്കാണ് അവരും കൊണ്ട് വരുമ്പം ഇന്ന രീതിയിലായിരിക്കണം അല്ലെ ഇങ്ങനെ വേണം ചേച്ചി തയ്ച്ച് തരാൻ ഇത് ഇങ്ങനെയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കാറുണ്ട് അത്കൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഉള്ളവർക്ക് തന്നെ പിള്ളേർക്ക് ബെർത്ത് ഡേയ്ക്കക്കെ ഗിഫ്റ്റായിട്ട് നമ്മൾ തന്നെ തയ്ച്ച തുണികൾ കൊടുക്കും അവരിട്ടോണ്ട് പലയിടങ്ങളിൽ പോവുമ്പം പലരും നല്ല അഭിപ്രായം ഇതാര് തയ്ച്ചതാന്ന് ഒക്കെ ചോദിക്കും അവർ ഞങ്ങളുടെ അമ്മയാന്ന് പറയുമ്പം അവർക്കൊരു അഭിമാനം പിന്നെ അത് എല്ലാവരും നല്ലതാന്ന് പറയുമ്പം നമുക്കും അതിനൊത്തൊരു അഭിമാനമുണ്ട് അത്കൊണ്ട് ആ കാര്യത്തിൽ ഇതുവരെ ആരും കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടില്ല ഇന്ന ആൾ തയ്ച്ചത് കൊള്ളത്തില്ല എന്നൊരു വാക്ക് ഇതുവരെ വന്നിട്ടില്ല എല്ലാവർക്കും നല്ല രീതീ തന്നെയാണ് തയ്ച്ച് കൊടുത്തിരിക്കുന്നത് പുറത്തുള്ളവർക്കും ചുരിദാറും ബ്ലൗസും നെറ്റീം പിന്നെ പിള്ളേർക്ക്ച്ച് പുതിയ ഫ്രോക്ക്കളും ഒക്കെ ഓരോ മോഡല് കാണിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്ത് കൊടുത്തോളം ആരും കംപ്ലെയിൻറ്റും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്